കേരളത്തിലെ വ്യവസായ സംസ്കാരം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വളരെ അധികം വത്യസ്തം വത്യസ്തമാണ് കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്തയുടെ മുഖ്യ സ്രോതസ്സ് എന്ന് പറയുന്നത് ടൂറിസമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ ഒട്ടേറെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഉണ്ട് ബീച്ച് അമ്പലം പള്ളികൾ വെള്ളച്ചാട്ടം ഹൗസ്ബോട്ട് എന്നു എന്നീ പലതരത്തിലുള്ള വിനോദസഞ്ചാരത്തിന് പറ്റുന്ന പല സ്ഥലങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട് ഇത് സന്ദർശിക്കാനായിട്ട് നിരവധി പേർ വിദേശികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ടൂറിസത്തിനോട് അനുബന്ധിച്ച് തന്നെ നിരവധി റെസ്റ്റോറൻ്റുകൾ കരകൗശല വസ്തുക്കൾ എന്ന സ്ഥലം റെസ്റ്റോറൻ്റുകളിൽ അതുപോലെ തന്നെ ഫുഡ്ഡ് ഫുഡ്ഡ് ഫെസ്റ്റിവല് അതുപോലെ തന്നെ കര കൗശലവസ്തുക്കൾ ഇതൊക്കെ വിറ്റഴിക്കുന്നുണ്ട് പിന്നേ കേരളത്തിൽ മുഖ്യ പഴ വർഗ്ഗം ചക്ക ചക്ക കൊണ്ടുള്ള ഉല്പന്നങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് അന്യസംസ്ഥാനങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട് അതേ പോലെ നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴം കൊണ്ടുള്ള ചിപ്സുകൾ നിരവധി ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട് വിദേശികൾ വന്ന് കഴി ഞ്ഞാൽ ടൂറിസ്റ്റുൾ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നിന്നുള്ള കരകൗശല വസ്തുക്കൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട് അവർ പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് ടൂറിസത്തിനോട് അനുബന്ധിച്ച് തന്നെ പല സ്ഥലങ്ങളിലും ഹോം സ്റ്റേകളും നടത്തി വരുന്നുണ്ട്